ഞാൻ പോയിട്ടുള്ള വളരെ മനോഹരമായ അല്ലെങ്കിൽ അതുല്യമോ ഹരിതയുള്ളതോ ആയ ഒരു പ്രദേശമാണ് വയനാട് ജില്ലയിലെ ചേമ്പ്ര പീക്ക് പ്രകൃതി രമണീയമായ നല്ല കാലാവസ്ഥയുള്ള ഈ നാട് ഈ നാടിൻ്റെ ഏറ്റവും ഉയർന്ന പ്രദേശമായ ചേമ്പ്ര പീക്ക് ഏഴ് മല നിരകൾ ചേർന്ന് നിൽക്കുന്നതാണ് ഒരു മല കയറുന്നു അതിനു ശേഷം രണ്ടാം മല കയറുന്നു മൂന്നാം മല കയറുന്നു അതിനിടയിൽ നമ്മൾ ഒരു ഹാർട്ടിൻ്റെ ഒരു ലേക്ക് കാണുന്നു അതിനു ശേഷം നാലാം മഴ മല അഞ്ചാം മല ആറ് മല ഏഴു മല കയറി നമ്മൾ മുകളിൽ എത്തുമ്പോൾ വായനാടിലെ ഏറ്റവും ഉയർന്ന പ്രദേശത്താണ് നമ്മൾ എത്തി നിൽക്കുക നമ്മൾ കയ്യിൽ കരുതുന്ന എല്ലാ ഭക്ഷ്യ വസ്തുക്കളും അതിനും മുന്നേ നമ്മൾ തീർത്തിട്ടുണ്ടാവും മൂന്ന് നാല് പ്രാവിശ്യം ആ മല കയറിയിട്ടും നമ്മൾ കരുതിയിരുന്നത് എല്ലാം തീർന്നു എങ്കിലും അവിടെ ഏറ്റവും മുകളിൽ നമുക്ക് ലഭിക്കുന്ന തണ്ണീർ

അത് വളരെ മനോഹരവും അത്ഭുതവും തോന്നിക്കുന്ന ഒന്നാണ്